ഞാൻ കൂടുതലും എൻ്റെ അപ്പനാണ് മത്സ്യബന്ധനത്തിന് പോണേ ഞാൻ അല്ലാതെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നൊരാളാണ് അപ്പോള് ഞങ്ങൾക്കുള്ളത് സാധാരണ തടി കൊണ്ടുള്ള ചെറിയ വള്ളമാണ് പല തരത്തിലുള്ള ബോട്ടുകളുണ്ട് വലിയ ബോട്ടുകളുണ്ട് എന്താണ് യമഹയുടെ മോട്ടോറൊക്കെ വച്ചിട്ട് ശബ്ദം ഒക്കെ കേള്പ്പിച്ച് പോണേ അങ്ങനത്തെ ബോട്ടുണ്ട് തടി വള്ളത്തിൻ്റെ തന്നെ പല ചെറുതും ഉണ്ട് മീഡിയം ഉണ്ട് പിന്നെ നല്ല വലിയ വള്ളങ്ങളും ഉണ്ട് അപ്പോള് ഞങ്ങൾക്കുള്ളത് ചെറിയ ചെറിയ ഒരു തടി കൊണ്ടുള്ള വള്ളമാണ് അപ്പോള് ഇങ്ങനെ പല തരത്തിലുള്ള ബോട്ടുകളാണ് പോവുന്നത് പക്ഷേ ബോട്ടുകള് ഇത് പല ബോട്ടുകളില് പോവുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മീനിന് വ്യത്യാസം ഒന്നും വരാറില്ല ഇപ്പോള് ചെറിയ വള്ളത്തിൽ പോയാലും വലിയ വെള്ളത്തിൽ പോയാലും സോറി വെള്ളത്തിലല്ല വള്ളത്തില് പോയാലും വലിയ വള്ളത്തില് പോയാലും കിട്ടേണ്ട മീനേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളെ തലയില് വരച്ചിട്ടുണ്ടെങ്കില് നമുക്കത് കിട്ടും എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ചൂണ്ടയിടുമ്പോൾ പലതരം ഉള്ള മീന് ഇത് കിട്ടാറുണ്ട് കരിമീൻ കരിമീൻ എനിക്ക് കിട്ടാറില്ല പിന്നെ എനിക്ക് കിട്ടാറുള്ളത് മറ്റേ ചെറിയ ചെറിയ മീനുകളാണ് എനിക്ക് കിട്ടാറുള്ളത് താങ്ക് യു